എനിക്കിത് വരെ ഫോട്ടോഗ്രാഫിയില് ഔപചാരിക പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല മാത്രമല്ല വെച്ചാൽ ബാക്കിയുള്ളത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് അവിടെ കണ്ടു അവിടെ തീർന്നു പിന്നീട് നമുക്ക് അതിനെപ്പറ്റി പഠിക്കണമെന്നോ അതിൻ്റെ പുറകെ നടക്കണമെന്നോ ചിന്തിക്കാറില്ല പിന്നെ ഒരു നല്ല ഫോട്ടോഗ്രാഫറാകണമെങ്കിൽ നൈപുണ്യം ആവശ്യമാണെന്ന് അറിയാം പക്ഷേ അതെങ്ങനെ മെച്ചപ്പെടുത്തണമെന്നോ ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണമെന്നോ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നോ ന്ന നിലവിൽ അറിയത്തില്ല

ബെറ്ററായിട്ടുള്ള ജോലിയും നല്ലൊരു ഹോബിയും ഒക്കെ തന്നെയാണ് ഫോട്ടോഗ്രാഫി നല്ലതാണ് അതുവായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതല് അറിയാനും പഠിക്കാനുമൊക്കെ താല്പര്യം വരും നമുക്ക് അതുവായിട്ടുള്ള കഴിവില്ല അപ്പം എന്താക്കി അതിനെപ്പറ്റി കൂടുതല് ചിന്തിച്ചില്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി അറിയാൻ പാടില്ല